ഹലോ ആ എന്തുണ്ട് ആരാണ് ആ എന്തുണ്ട് ശരി ശരി ആ ഈ അടുക്കളയിലേതാണോ പാത്രം കഴുകുന്നയിടത്തെയാണോ അല്ലാ അത് പൈപ്പിൻ്റേതാണോ അതോ മറ്റേ ഈ ടാപ്പിൻ്റെ വല്ല കംപ്ലൈൻറ്റ് ആണോ ടാപ്പിന്റെ അവിടെനിന്നാണോ ലീക്ക് അതെ അതെനിക്ക് ഒന്ന് ഫോട്ടോ എടുത്തിടണം കാരണമെന്താണെന്ന് ചോദിച്ചാല് ഈ ബാത്റൂം മറ്റേ കിച്ചണ് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് ടൈലിന് ഈ പൈപ്പ് ഇറങ്ങിവരുന്നത് അതിന് നീളമില്ലെന്നുണ്ടെങ്കില് ആ നീളം കാണില്ല നേരെ ഈ പൈപ്പ് അതിലോട്ട് കയറ്റിവെയ്ക്കുകയെയുള്ളൂ ചിലപ്പോള് ആ ടൈല് ചിലപ്പോള് ഇത്തിരി പൊട്ടിക്കേണ്ടി വരുമായിരിക്കും എനിക്ക് ഫോട്ടോ എടുത്തൊന്നിടണം കാരണമെന്താണെന്ന് വെച്ചാൽ അതൊന്ന് നോക്കിയിട്ട് ഞാനത് ഇപ്പോള് ഉടനെ ചെയ്യാൻ പറ്റുന്നതാണോയെന്ന് നോക്കട്ടെ അല്ലെന്നുണ്ടെങ്കില് അത് ജോയിൻ ചെയ്യണം പൈപ്പ് അൽപ്പം ജോയിൻ ചെയ്യേണ്ടി വരുമായിരിക്കും കാരണം ഈ ടൈലിനകത്തോട്ടാണ് ഈ പൈപ്പ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് എങ്ങനെ എങ്ങനെ കേട്ടില്ല ഏ ഇതില്ല റേഞ്ചില്ല റേഞ്ചുള്ളയിടത്തോട്ട് മാറ് ആ പറഞ്ഞുകൊള്ളൂ പറഞ്ഞുകൊള്ളൂ എന്താണ് ആ പറഞ്ഞുകൊള്ളൂ ആ അപ്പോള് അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ പൈപ്പ് നമ്മുടെ ഈ അതിനകത്തേക്ക് ആ ടൈലിനിടയ്ക്ക് കൂടെയല്ലേ മറ്റേ ലൈൻ പൈപ്പ് നേരെ വരുമ്പോൾ അതിലേക്കാണ് ഇത് കയറ്റുന്നത് ആ എന്നാല് ഇപ്പം ഈ ടൈലിനകത്താണ് അതിൻ്റെ എന്ഡ് നില്ക്കുന്നത് അതിലേക്കാണ് നമ്മള് തിരിച്ചുകയറ്റുന്നത് നമ്മള് ചിലപ്പോള് തിരിച്ച് ഊരിയെടുത്ത് വേറെ പൈപ്പ് നമ്മള് ഫിറ്റ് ചെയ്യുമ്പോള് ചിലപ്പോള് ആ പൈപ്പ് ചിലപ്പം കറക്റ്റ ആകുമെന്ന് തോന്നുന്നില്ല അപ്പോള് അതുകൊണ്ട് ചിലപ്പം അത് ഭാഗ്യം പോലെയിരിക്കും ചിലപ്പോള് ടൈൽ ഇത്തിരി പൊട്ടിക്കേണ്ടി വരുമായിരിക്കും എനിക്ക് അതിൻ്റെ ആ ഫോട്ടോ ഒന്നെടുത്തിടൂ ഏത് പൈപ്പാണ് ആ ഇരുമ്പ് പൈപ്പാണോ അതോ പി വി സി ആണോ അത് നോക്കിയിട്ടേ നമുക്ക് ചെയ്യാനൊക്കുകയുള്ളൂ അല്ല ഞാനിപ്പോള് ഒരു വർക്കിലാണ് ഞാന് ഇതിപ്പോള് അതിൻ്റെ ഫോട്ടോ എടുത്തു തന്നുകഴിഞ്ഞാല് ഇപ്പം നോക്കിയിട്ട് പിള്ളേരെ വേണമെങ്കില് വീടാം ചെയ്യാം ഉടനെ ചെയ്തുതരാൻ പറ്റുന്നതാണെങ്കില് ഞാൻ പിള്ളേരെ വിട്ടിട്ട് ആ സാധനം വേണ്ടത് മേടിച്ച് അവരവിടെ വന്ന് ചെയ്തുതരും

ആ ഫോട്ടോയെടുത്ത് വാട്സപ്പിടൂ എന്നിട്ട് എനിക്ക് ഏകദേശമൊരു രൂപം കിട്ടും

അത് അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല ഞാനിത് ഫോട്ടോ കണ്ടിട്ട് എനിക്ക് നമുക്ക് ഉടനെയങ്ങ് ചെയ്തുതീര്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കില് ഞാനിപ്പോള് തന്നെ പിള്ളേരെ വിടാം കുഴപ്പമില്ല സാധനവും കൂടെ മേടിച്ച് അതിന് വേണ്ട സാധനങ്ങളും കൂടെ മേടിച്ചങ്ങ് അവരെ അങ്ങോട്ട് വിടാം ആ എനിക്ക് എനിക്ക് ആ രണ്ടിന്റെയും ഫോട്ടോ എടുത്തിടണം കാരണം കാരണം അവിടെനിന്ന് സാധനം മേടിക്കുമ്പോള് അതിൻ്റെ രണ്ടിന്റെയും കൂടെ മേടിച്ചുകൊണ്ട് അഥവാ വേണമെന്നുണ്ടെങ്കില് മേടിച്ചുകൊണ്ട് വരാൻ പറ്റുമല്ലോ ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയില് ചെയ്യാം ആ ഞാൻ ഒത്തിരി താമസിക്കില്ല നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തുതരാം ആ കാരണമെന്താണെന്ന് ചോദിച്ചാല് ചിലപ്പം ഞാൻ പറഞ്ഞില്ലെ ഫോട്ടോ എടുത്തിടണം താമസപ്പിക്കാതെ നമുക്ക് ചെയ്യാം ഓക്കെ ഓക്കെ ഓക്കെ